ഞങ്ങളെ നാട്ടിൽ ഇപ്പം മനുഷ്യർ ഇപ്പം നമ്മളെ വേഷം മാറി അഭിനയിക്കുന്നതാണെങ്കിൽ കഥകളി അതേപോലെ അങ്ങനെ പല കലാരൂപങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ വച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നിട്ട് അവർ നമ്മളെ ഡ്രസ്സിങ്ങ് സ്റ്റൈലിൽ നല്ല വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ കരകൗശല വസ്തുക്കളൊക്കെയാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക പെയിൻ്റിങ്ങ്സിലൊക്കെ നല്ല വ്യത്യാസമാണ് മറ്റു രാജ്യങ്ങളിൽ മറ്റു നാടുകളിൽ നിന്നും നമ്മുടെ നാടിനെ വച്ചിട്ട് പെയിൻ്റിങ്ങ്സിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് അതേപോലെ എന്താ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിലുള്ള ശൈലി ആ നമ്മുടെ തന്നെ തന്നെ ശൈലിയിലാണ് മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അതേപോലെ അച്ചടിഭാഷയിൽ ആണെങ്കിലും ശില്പം ഉണ്ടാക്കുന്നതിലൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രീതിക്കുള്ള വ്യത്യാസം വരുന്നുണ്ട്